ഹലോ ഓല ഏജൻസിയല്ലേ എൻ്റെ പേര് ശിവാനി ഞാൻ ശ്രീകാര്യത്തു നിന്ന് ആക്കുളത്തോട്ട് പോവാനായിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നൂറ്റി ഇരുപത് രൂപയാണ് പറഞ്ഞിരുന്നത് എന്നെ പത്ത് മിനിറ്റിൾ എത്തിക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കുതന്നെ ആക്കുളത്ത് എത്തിയപ്പോൾത്തന്നെ ഓൾമോസ്റ്റ് ഒരു അരമണക്കൂറിന് അടുപ്പിച്ച് ആയിട്ടുണ്ട് അത് മാത്രമല്ല ഇവിടെ എത്തിയപ്പോഴത്തേക്കും എന്നോട് ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് റീസൺ ചോദിച്ചപ്പോഴത്തേക്കും അത് ദൂരം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എക്സ്ക്യൂസസ് പറയുന്നുണ്ട് ആക്ച്വലി ശ്രീകാര്യത്തു നിന്ന് ആക്കുളത്തോട്ട് വരാനായിട്ട് രണ്ടു റോഡ് ഉണ്ട് ഷോട്ട്കട്ടും ഉണ്ട് അല്ലാതെ കുറച്ച് ലോങ്ങായിട്ടുള്ള വഴിയും ഉണ്ട് ഞാൻ ഷോർട്ട്കട്ട് വഴി പോവാനായിട്ടാണ് പറഞ്ഞിരുന്നത് കാണിച്ചിരുന്ന റൂട്ടും അതുതന്നെയാണ് അപ്പോൾ എനിക്കൊരു ടെൻ മിനിറ്റ്സിൽ എത്താമായിരുന്നു എനിക്കൊരു എമർജെൻസി മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ പെട്ടെന്ന് പോവാനായിട്ട് ഞാൻ പറഞ്ഞു ഷോർട്ട്കട്ട് എടുത്ത് പോവാൻ പറഞ്ഞപ്പോഴത്തേക്കും ആ റോഡ് ശരിയല്ല മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എക്സ്ക്യൂസെസ്സ് പറഞ്ഞിട്ട് ഒത്തിരി ടൈം എടുത്താണ് എത്തിയത് അതു മാത്രമല്ല ഭയങ്കര സ്ലോ ആയിട്ടാണ് വണ്ടി ഓടിച്ചത് എന്നാൽ അത്ര ട്രാഫിക്കോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു റോഡ് ക്ലിയർ ആയിരുന്നു ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയത് ഞാൻ പറഞ്ഞു എനിക്ക് എമർജെൻസിയാണ് പെട്ടെന്ന് എനിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടും ഡ്രൈവറ് മൈൻ്റ് ചെയ്യുന്നില്ലായിരുന്നു അതുമാത്രമല്ല ബിഹേവിയറ് ഭയങ്കര റൂഡായിരുന്നു എനിക്ക് ഇപ്പോൾ എൻ്റെ ടൈമ് ഫുള്ള് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ പൈസ ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് തർക്കിച്ചുകൊണ്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കെന്തായാലും അത്രയും ക്യാഷ് കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല അതിൽ കാണിച്ച റൂട്ടിൽക്കൂടെ അല്ല വന്നിരിക്കുന്നത് അതുമാത്രമല്ല ഡ്രൈവിങ്ങ് ഭയങ്കര മോശമായിരുന്നു സീറ്റിങ്ങൊക്കെ പ്രശ്നം ആയിരുന്നു സീറ്റിങ്ങ് ഇപ്പം സീറ്റൊക്കെ ഇളകി ഇരിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ഇളകിയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ അതിൻ്റെ അകത്ത് കുരുങ്ങി ഞാൻ ഒരു മീറ്റിങ്ങിന് പോവാനായിട്ട് ഇറങ്ങി നിൽക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ ഡ്രെസ്സൊക്കെ കീറിയിരിക്കുകയാണ് അത് മാത്രമല്ല എൻ്റെ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ലോക്കായിപ്പോയി ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് തിരിച്ച് ഡോറ് തുറക്കാൻ നോക്കുന്നു പറ്റുന്നില്ല എൻ്റെ സാധനങ്ങൾ അതിൻ്റെ അകത്ത് ലോക്കായിരിക്കുകയാണ് എൻ്റെ ഡോക്ക്യൂമെൻ്റ്സും എൻ്റെ ലാപ്പും എല്ലാം കാറിൻ്റെ അകത്ത് ഇരിക്കുകയാണ് അതു മാത്രമല്ല ഈ ഡ്രൈവറ് സ്മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാറിൽ ഫുള്ള് നല്ല സ്മെല്ല് ഉണ്ട് എനിക്ക് അതൊക്ക ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇതിന് എനിക്ക് ഒരു നടപടി എടുത്തേ പറ്റൂ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈറ്റിൽ കയറിയിട്ട് ഞാൻ പോസ്റ്റ് റിവ്യൂ കൊടുക്കുന്നതായിരിക്കും എന്തായാലും ക്യാഷ് കൊടുക്കാൻ എനിക്ക് താൽപ്പര്യമില്ല നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കൺസ്യൂമർ കോർട്ടിൽ പോയി പരാതി കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കുക എൻ്റെ ടൈം പൊയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കേ